നമ്മുടെ ഗ്രാമത്തിൽ ആർക്കെങ്കിലും പട്ടി കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മുറിവ് വൃത്തിയായി കഴുകുക എന്നതാണ് അതിന് ശേഷം ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് വൃത്തിയായി ക്ളീൻ ചെയ്യുക മുറിവ് പിന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഈ കടിയേറ്റാളിനെ എത്തിക്കുക അവിടത്തെ ഡോക്ടറിൻ്റെ ഡോക്ടറുമായി ചർച്ചേയ്ത് കുത്തിവെപ്പ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കുക അതിനുശേഷം പട്ടിക്ക് പേവിഷബാധ ഇല്ല അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പട്ടിയെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അതിപ്പോള് തെരുവ് നായയായാലും ഏതെങ്കിലും വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിൽ കൂടിയും എവിടെയെങ്കിലും കെട്ടിയിട്ട് രണ്ടാഴ്ചത്തോളം അതിനെ നിരീക്ഷിക്കേണ്ടതാണ് പേവിഷബാധ ഇല്ല എന്ന് ഉറപ്പു വരുത്താനും പിന്നെ മറ്റൊരാളെ ഇത് പട്ടി ഉപദ്രവിക്കില്ല എന്നതിനും ഒരുറപ്പു വരുത്താൻ വേണ്ടിയിട്ട് അതിനെ കെട്ടിയിടുക